ആ ഹലോ പറയു ഇത് കുട്ടനാടൻ ടി ഷോപ്പാണ് പറയൂ ആ ഓക്കെ ജോയ്സ പറയൂ ആ ഓക്കെ ജോയലാണോ ആ നമ്മള്ക്ക് ഇപ്പോള് നമുക്കിപ്പോള് വരൂന്നേന്ന് പറയുന്ന നമ്മുടെ ഷോപ്പില് കാപ്പി ഐറ്റംസായിട്ട് നോർമൽ ചായയും ബൂസ്റ്റ് ഹോർലിക്സ് ബൂസ്റ്റ് കോഫി ഐറ്റംസ് പിന്നെ കടികളായിട്ട് സ്നാക്സ് നോർമൽ ഏത്തയ്ക്കാപ്പം പഴംപൊരി പിന്നെ റേറ്റ് കൂടുന്നതിനുസരിച്ച് നമുക്ക് സാൻഡ്വിച്ച് ബർഗേഴ്സ് കേക്ക് ഐറ്റംസെല്ലാം അവൈലബിളാണ് സാറപ്പോള് ഏത് തരത്തിലുള്ളതാണ് നോക്കുന്നേന്ന് പറയാമോ നല്ലതായിരുന്നു ആ ബൂസ്റ്റർ ചായേടെ കാര്യം നമുക്ക് നമുക്ക് ട്വൻറ്റി ട്വൻറ്റി റുപ്പീസാണ് നമുക്ക് ബൂസ്റ്റർ ചായക്ക് വരുന്നേ നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള സാധനമാണത് ആ അപ്പോള് നമുക്ക് മിനിമം ഒരു ഫൈവ് ഹൺഡ്രഡ് ഓർ എയിറ്റ് ഹൺഡ്രഡ് റുപ്പീസിൻറ്റടുത്ത് ആ ചാർജേയ്യുന്നുള്ളത് നിങ്ങള് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഹോം ഡെലിവറി അവൈലബിളായിട്ട് തരാൻ പറ്റും ഇല്ലെങ്കി നിങ്ങളിവിടെ വന്ന് മേടിച്ച് പോകേണ്ടി വരും ഏത്തയ്ക്കാപ്പം പല വെറൈറ്റി ടൈപ്പ് വരുന്നുണ്ട് നോർമൽ ഏത്തയ്ക്കാപ്പാണെങ്കില് പത്ത് ആ വീറ്റ് ഏത്തയ്ക്കാപ്പം ഉണ്ട് ആ പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മള് പല സൈഡ് ഡിഷസ് പോലെ ഓരോന്ന് ആഡെയ്തൊള്ള ഏത്തയ്ക്കാപ്പം ഉണ്ട് അപ്പോള് നോർമലേത്തയ്ക്കാപ്പം നമുക്ക് ടെൻ ടെൻ റുപ്പീസാണ് വരുന്നത് അപ്പോള് ഒരു ബൂസ്റ്റർ ചായയും ഒരു ഏത്തയ്ക്കാപ്പവും എന്നു പറയുന്ന നമുക്ക് തേർട്ടി റുപ്പീസ് പെർ പേഴ്സണ് വച്ച് നമുക്ക് ചാർജ് വരും ആ റേറ്റാണോ നോക്കുന്നത്

ഓ നാളത്തേക്ക് അ നമുക്ക് ചെയ്ത് തരുന്നതിന് കൊഴപ് കോ നമുക്ക് ചെയ്ത് തരാൻ ഓക്കെ ആണ് സാറിൻ്റെ അഡ്രസ്സ് കാര്യങ്ങള് വീട്ടിലെ ഫോൺ നമ്പര് അത് തന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്തു തരാൻ പറ്റുന്നതായിരിക്കും ഓക്കെ ഓക്കെ മ് ആ ഓക്കെ സാറിന് നമുക്ക് ചെയ്ത് തരാം അപ്പോള് സാറെന്തായാലും അഡ്വാൻസ് പേയ്മെൻറ്റ് നമുക്ക് ചെയ്ത് തരേണ്ടിവരും നമുക്കിപ്പോള് ഡെലിവെറിയും കൂടെ കൂട്ടി തൗസൻഡ് ഫൈവ് ഹൺഡ്രടാണ് ചാർജ് വരുന്നത് ചാർജ് വരുന്നത് അതിൽ ഫൈവ് ഹൺഡ്രഡ് നമുക്ക് അഡ്വാൻസായിട്ട് ബുക്കെയ്യേണ്ടി വരും ബാക്കി തൗസൻഡ് നമുക്ക് കയ്യില് തന്നാല്മതി ഇത് തന്നാണ് എൻ്റെ ഗൂഗിൾ പേ നമ്പര് ഓക്കെ ഓക്കെ അപ്പോള് താങ്ക്യൂ ഫോർ ദ കോളിങ് ഓക്കെ ഓക്കെ ഓക്കെ